വ്യവസായ സംഘടകർ വളരെ അധികം വികസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ത്യയി ഇപ്പോൾ ഉള്ളത് കാരണം ഇപ്പോൾ ലോകത്തിൽ ലോകത്തിലെ വ്യവസായ സമ്പന്നര വ്യവസായത്തിൽ സമ്പന്നരായ ആൾക്കാരിൽ നോക്കുക ആണെങ്കിൽ അതിൽ നമ്മളെ രാജ്യത്തിന്നും മുഗേഷ് അമ്പാനിയും അതുപോലെ ഗൗതം അദാനി എന്ന് പറയുന്നവർ മേലെ തട്ടി തന്നെ കാണുന്നുണ്ട് ഏറ്റവും വലിയ സമ്പന്നരായ തട്ടുകയിൽ അവരുടെ അവർ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് നമുക്ക് അതുപോലെ തന്നെ ഇന്ത്യയുടെ റെ റാങ്ക് നോക്കുവാണേലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ കുറെ സമ്പനരായ ആൾക്കാരുകൾ ഇപ്പോൾ ഉയർന്ന് വരുന്നണ്ട് സ്റ്റാർട്ടപ്പ് കം സ്റ്റാർട്ടപ്പ് സമ്പന്ന സമ്പർണങ്ങ സംരംഭങ്ങൾ ലൂടെ സമ്പന്നരായ പല വ്യവസായ ആൾക്കാരേം നമുക്കീ കാലഘട്ടത്തിൽ കാൽ കാണാറുണ്ട് അതിൽ ഒരു കുതിച്ചു ചാട്ടമാണ് നമ്മൾ കാണുന്നത് ഇന്ത്യയെ ഒരു വ്യവസായരാജ്യമായും മൂന്നാമത്തെ വ്യവസായ രാജ്യമായും ഇപ്പോൾ കാണാം അത് ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഒന്നാമതെത്തൂന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അതുപോലെയാണ് ഇന്ത്യയുടെ കുതിച്ച് ചാട്ടം ഒരു ഇന്ത്യയുടെ ജനസംഖ്യ അനുസരിച്ച് നമുക്ക് അറിയാം ഇവിടെ ബിസിനസ്സ് വ്യവസായത്തിനും പാ നല്ലൊരു സാധ്യതയുള്ള സ്ഥലമാണ് അതിനാൽ നല്ലൊരു വികസനം ഈ ഇന്ത്യയിൽ ഇനിയും ഉണ്ടാകും സർക്കാർനും സർക്കാരും ഇതിന് ഭയങ്കര സഹായമാണ് നൽകുന്നതിൽ പുതിയ സംരംങ്ങൾക്കും ഓരോ സബ്സിഡികളിലും പലതരം സഹായങ്ങളും ലോണുമൊക്കെ നൽകി സർക്കാരും സഹായിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ സർക്കാർ തലത്തിലും പല വ്യവസായങ്ങളും സ്റ്റാർട്ട് തുടങ്ങുന്നുണ്ട് ഈ രാജ്യത്ത് അത് പലർക്കും പുതിയ തൊഴിലവസരങ്ങളും ഒക്കെ ലഭിക്കുന്നതിന് സഹായിക്കുന്നു അത് ഇന്ത്യയുടെ വികസനത്തിന് നല്ല വണ്ണം അത് സഹായിക്കേം ചെയ്യുന്നുണ്ട് ഇന്ത്യ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കേം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല വ്യവസായത്തിൽ ത്തിൽ പല കാ കള്ളത്തരങ്ങളും സത്യസന്തമായതും ഉണ്ട് എന്നാൽ കാ സത്യ എപ്പോഴും നമ്മൾ സത്യസത്തമായി മാത്രം വ്യവസായം ചെയ്യുക അതായത് നമ്മൾ നിയമത്തിന് അനുസരിതമല്ലാത്ത പല കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നിയമത്തിന് അനുസരിതമായി ചെയ്യാൻ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഓ ഉയർച്ച ഉണ്ടാകില്ല മറിച്ചും തകർച്ച മാത്രമേ ഉണ്ടാകുകയുള്ളു അത് നമ്മുടെ രാജ്യത്തെ വളരെ പിന്നോക്കത്തിലേക്ക് കൊണ്ടുവാനും സ ചെയ്യുന്നതാണ് അതിനാൽ സത്യസന്ധമായും നമ്മൾ അതുപോലെ തന്നെ നിയമത്തിന് അനുസരിതമായി ഒരു വ്യവസായം ചെയ്യാൻ പാടുള്ളൂ വ്യവസായത്തിലൂടെ പലർക്കും തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകുകയാണ് അതുകൊണ്ട് പുതിയ പുതിയ വ്യവസായ ചിന്തകളും സം സംവരണം സംരംഭങ്ങളും ഉയർ ഉയർന്നുവരണമെന്നു ആണ് എൻ്റെ ആഗ്രഹം അതുപോലെ സർക്കാർ ഇതിന് പുതിയ പുതിയ സഹായങ്ങളും നല്ല നല്ല സഹായങ്ങളും ഏർപ്പെടുത്തമെന്ന് അഭ്യർത്തിക്കുന്നു ഇതിനാൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു പലർക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പട്ടിണിയെ മാറ്റാനിത് സഹായിക്കും പലർക്കും തൊഴിലവസരം ലഭിക്കുന്നതിലൂടെ എല്ലാവർക്കും പഠനവും അതായ് ഒരു നല്ലൊരു ഒരു എഡ്യൂക്കേഷൻ അതായത് നമുക്ക് നല്ല നോളജ്ള്ള ഒരു തലമുറ വാർത്തെടുക്കാൻ ഇതിൽ കൂടെ നമുക്ക് സഹായം ലഭിക്കുന്നതാണ് ഇത് എൻ്റെ വാക്കുകൾ സമാപിക്കുന്നു ജയ്ഹിന്ദ്